സാധാരണ നമ്മള് പശുവിനെ ആടിനെയൊക്കെ വളർത്തുമ്പോഴത്തേക്കിന് നമ്മള് അവർക്ക് തീറ്റകള് വാങ്ങിക്കാറുണ്ട് പക്ഷേ നമ്മള് വീടുകളിൽ നമ്മള് പറമ്പുകളിലൊക്കെ പോയി നമ്മള് പുല്ല് പച്ചപ്പുല്ല് ചെത്തി കൊടുക്കുമ്പോഴത്തെക്കിനാണ് കൂടുതൽ അതുങ്ങള്ക്ക് ഇഷ്ടം സാധാരണ ഈ കച്ചിയൊക്കെ കൊടുക്കുമ്പോൾ അത്ര പാല് കിട്ടാറില്ല നമ്മള് പച്ചപ്പുല്ല് തന്നെ ചെത്തിക്കൊണ്ടുകൊടുക്കുമ്പോഴത്തെക്കിന് അതിൻറ്റേതായിട്ടുള്ള വ്യത്യാസങ്ങള് പാലിൽ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മള് അതിനുങ്ങള്ക്കു കൊടുക്കുന്നത് ഈ നമ്മള് മേടിക്കുന്നത് പിന്നെ ഈ തീറ്റകളുണ്ടല്ലോ കാലി ത്തീറ്റകള് അത് ഗുണനിലവാരം ഉള്ളതുമുണ്ട് ഗുണനിലവാരം കുറഞ്ഞതുവുണ്ടേ പക്ഷേ സാധാരണ ഒരു ആൾക്കാരൊക്കെ ഗുണനിലവാരം കുറഞ്ഞത് വാങ്ങിക്കും കാരണം എന്നാവച്ചാൽ അവർക്ക് ലാഭം വേണ്ടേ അപ്പോള് നമ്മളതൊന്നും നോക്കത്തില്ല നമ്മള് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവർക്കും കൊടുക്കുന്ന ആ ഒരിതിൽ നമ്മള് നല്ല തീറ്റകളൊക്കെ വാങ്ങിച്ചു കാലിത്തീറ്റുകളൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലും പറമ്പുകളിലൊക്കെ പശുവിനൊക്കെ ആണേലും ആടിനെയൊക്കെ ആണെങ്കിലും നമ്മള് അഴിച്ചു കെട്ടി അതുങ്ങളാ പച്ചപ്പുല്ല് ഒക്കെ തിന്നുമ്പഴത്തേയ്ക്കിന് അതിൻറ്റേതായിട്ടുള്ള ഗുണങ്ങള് പശുക്കൾക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മള് ഈ പുല്ലുകള് അല്ലെങ്കിലതുകണക്കുള്ള ഈ പിന്നെ ഈ വാഴപ്പിണ്ടികള് വാഴപ്പിണ്ടികളൊക്കെ നല്ലതാണ് ഈ പശുവിനൊക്കെ കൊടുക്കുന്നത് ഈ ഉണക്ക സമയത്ത് വെയില് നല്ല ഉദിക്കുന്ന വെയിലത്തൊക്കെ ഈ പശുക്കൾക്കൊക്കെ ദാഹിക്കുമ്പഴത്തേക്ക് നമ്മള് സാധാരണ ഈ വാഴപ്പിണ്ടികള് നമ്മള് അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അപ്പോള് വാഴപ്പിണ്ടികളൊക്കെ കൊടുക്കുമ്പഴത്തേന് പശുവിനൊക്കെ ഒരു തണുപ്പ് കിട്ടും കഴിക്കുമ്പഴത്തേക്ക് പിന്നെ അതുങ്ങൾക്ക് നമ്മള് എത്ര കുടി കൊടുത്താലും ചൂടത്തൊക്കെ അതുങ്ങൾക്ക് ദാഹം തീരത്തില്ല അപ്പോള് നമ്മള് അഴിച്ചുമാറ്റി തണലത്തോട്ടൊക്കെ മാറ്റിക്കെട്ടോ പിന്നെ രണ്ടു നേരം പശുക്കളെ കുളിപ്പിക്കുന്നവരുണ്ട് കറക്കുന്ന പശുക്കളൊക്കെ ആണെങ്കില് അതുങ്ങളെ രണ്ടു നേരം കുളിപ്പിക്കണം കാരണം അതുങ്ങളുടെ ശരീരത്തിന് ബലം ഈ തണുപ്പ് കിട്ടാനായിട്ട് പിന്നെ അതുകൂടാതെ നമ്മള് നിരന്തരമായിട്ട് കൂടുതലായിട്ട് ഈ പാല് കിട്ടുന്ന പശുകൾക്കൊക്കെയാണെങ്കില് നമ്മള് കാൽസ്യ പൊടി ഒക്കെ കൊടുക്കണം കാരണം ഈ പശുകൾക്കൊക്കെ ഈ പിന്നെ ഒത്തിരി ലിറ്റര് അതായത് പത്ത് ഇരുപത് ലിറ്റര് പാല് കിട്ടുന്ന പശുക്കളൊക്കെ ആണെങ്കിലതുങ്ങള്ക്ക് കാലിനൊക്കെ ബലക്കുറവുണ്ടാവും കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് പശുക്കള് തളർന്നു പോകാറുണ്ട് അപ്പോള് നമ്മളന്നേരം ഈ കാൽസ്യപ്പൊടികളൊക്കെ മേടിച്ച് പൊടി ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ച് പശുക്കൾക്ക് ഇങ്ങനെ ചക്കരക്കകത്തൊക്കെ ഉണ്ട ഉരുട്ടി അതുങ്ങള്ക്ക് കൊടുക്കും പിന്നെ അതിന് പറ്റുന്ന എന്തെങ്കിലും കുടികള് അതായത് നമ്മള് വെള്ളത്തില് കലക്കി കൊടുക്കുന്ന പൊടികളോ അതൊക്കെ കലക്കി നമ്മള് കൊടുക്കുമ്പോള് അതിൻറ്റേതായിട്ടുള്ള ഗുണങ്ങള് പശുക്കൾക്ക് കിട്ടും പിന്നെ സാധാരണ നാടൻ പശുക്കളൊക്കെ ആണെങ്കില് അധികം തീറ്റയീ നമ്മള് ഈ പച്ചപ്പുല്ലൊക്കെ തന്നെയാണ് അതുങ്ങൾക്ക് കൊടുക്കാറുള്ളത് കാരണം നമ്മള് മേടിച്ചുള്ള തീറ്റകളൊക്കെ അങ്ങനെ കൊടുക്കുന്നത് പതിവില്ല നമ്മള് സാധാരണ നാടൻ പശുക്കൾക്കല്ലാതുള്ള പശുക്കൾക്കൊക്കെയാണ് നമ്മളീ മേടിച്ചുള്ള തീറ്റകള് ഈ പൊടികളും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ നാടൻ പശുക്കൾക്കൊക്കെയാണ് സാധാരണ നല്ല പാല് കിട്ടുന്നത് പക്ഷേ പാല് കുറവായിരിക്കും അതങ്ങ് മറ്റുള്ള പശുക്കളെ അപേക്ഷിച്ച് പാല് കുറവായിരിക്കും നമ്മള് ഈ നാടന് പശുക്കൾക്ക് കൂടി വന്നാൽ നാല് ലിട്ടർ അല്ലെങ്കില് അഞ്ച് ലിട്രോക്കെയേ പശുക്കൾക്ക് പാല് കിട്ടാറുള്ളൂ പക്ഷേ നമ്മുടെ മറ്റുള്ള പശുക്കളൊക്കെ ആണെങ്കില് ഇരുപത് ലിറ്ററ് ഇരുവത്തഞ്ചു ലിറ്ററ് പാല് കിട്ടുന്ന പശുക്കളൊക്കെ ഉണ്ട് പക്ഷേ ഗുണം നമ്മുടെ നാടൻ പശുവിൻ്റെ തന്നെയാണ് അതിൻ്റെ പാലാണ് കൊഴുപ്പുള്ളതും ഗുണങ്ങളണ അടങ്ങിയിരിക്കുന്നതും പിന്നെ എല്ലാരും ലാഭം നോക്കി സാധാരണ ഇങ്ങനെ ഈ കൂടുതൽ പാലു കിട്ടുന്ന പശുക്കളെ വളർത്താറുണ്ട് പിന്നെ ആടാങ്കി ആടാണെങ്കിലും നമ്മള് സാധാരണ ഇപ്പോള് ആടുകള് ഈ നമ്മള് കൊച്ചുകുട്ടികളുള്ളിടത്തൊക്കെയാണ് സാധാരണയായി ആട്ട് ആടുകളെ വളർത്താറുള്ളത് കാരണം ആടിൻ പാലും ഗുണമുള്ളതാണ് ഔഷധമാണ് ആട്ടിൻ പാലെന്നാണ് പറയാറുള്ളത് കാരണം ഈ പിന്നെ വിമ്മിഷ്ടൂള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ആട്ടിൻ പാല് ഒത്തിരിയേറെ ഗുണങ്ങള് ചെയ്യാറുണ്ട് അതുങ്ങള് കുടിക്കുമ്പഴത്തേക്കിന് കഫക്കെട്ടിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങള് വരാറുണ്ട് അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്